ഹലോ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നതായിരുന്നു എനിക്ക് എറണാകുളത്ത് ചെന്നിട്ട് എനിക്ക് റെന്റിന് രണ്ട് മൂന്ന് ബൈക്ക് വേണമായിരുന്നു എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉം എല്ലാ വണ്ടിയും ഉണ്ട് അല്ലേ നമുക്കൊരു ഹിമാലയ ആ മോഡൽ വണ്ടിക്കൊക്കെ എത്രയാണ് റെന്റിന് വരുന്നത് ടു തൗസന്റ് വരും അല്ലേ ആ ആ ഓക്കെ നിങ്ങൾ തന്നെ എണ്ണ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതോ ഞങ്ങൾ തന്നെ അടിക്കണോ ആ ബാക്കിയോ അടിക്കേണ്ടി വരും അല്ലേ ആ ഓക്കെ ഓക്കെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തരുന്നുണ്ടൊ ആ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ നമ്മൾ എന്തൊക്കെ പ്രൂഫ് ആണ് തരേണ്ടത് ആ ഇപ്പോൾ ഒറിജിനൽ ആണോ തരേണ്ടത് നിങ്ങൾക്ക് ഒറിജിനൽ ആധാർ കാർഡ് തന്നെ ആണോ ഓ ആ ഓക്കെ ഓക്കെ മതി അല്ലേ ഓക്കെ ഓക്കെ പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങൾ വന്നാൽ നിങ്ങൾ എങ്ങനെ ഞങ്ങളുടെ കൈയിൽ നിന്ന് പൈസ എടുക്കുക ആ അപ്പോൾ അവിടുന്ന് ഇത് ആ ഓക്കെ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് പൈസ നിങ്ങൾ മേടിക്കും അല്ലേ ആ ചെയ്ത് തരേണ്ടി വരും അല്ലേ ഓക്കെ ഓക്കെ ആ അങ്ങനെ ആണെങ്കിൽ ഞാൻ മറ്റന്നാളാണ് വരിക അപ്പം നിങ്ങൾ ഒന്ന് മറ്റന്നാളത്തേക്കൊന്ന് വണ്ടി ഒരു മൂന്ന് വണ്ടി മതി നമുക്ക്

എടുക്കാം അല്ലേ ഓക്കെ ഓക്കെ എനിക്ക് ആ കുറച്ച് നല്ല പ്രീമിയം ബൈക്സ് തന്നെ ഇരുന്നോട്ടെ എനിക്ക് കുറേ സ്ഥലങ്ങളിൽ പോവാനുണ്ട് എനിക്ക് കർണാടക ആ ഭാഗത്തേക്കൊക്കെ ഈ വണ്ടി കൊണ്ട് പോവാനാണ് ഓക്കെ ഓക്കെ എന്നാൽ ഞാനെന്നാൽ വിളിക്കാം എന്നാൽ